എനിക്കങ്ങനെ മലയാള ഭാഷയിൽനിന്ന് ഇതെങ്ങനെ തിരിച്ച് ഒന്നുമങ്ങനെ വിവർത്തനം ചെയ്യേണ്ടതായിട്ട് വന്നിട്ടില്ല പക്ഷെ വിവർത്തനം ചെയ്യപ്പെട്ട പുസ്തകങ്ങളോ ഒക്കെ വായിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് മറ്റ് ഭാഷകളിൽ നിന്നൊക്കെ വിവർത്തനം ചെയ്യപ്പെട്ട സംഭവങ്ങളൊക്കെയാണ് ഞാൻ കൂടുതലും വായിച്ചിട്ടുള്ളത് അതൊക്കെ എനിക്ക് നല്ലൊരു എക്സ്പീരിയൻസ് തന്നിട്ടുണ്ട് കാരണം എന്താണ് അത് ഇപ്പോൾ ഒരാൾ എഴുതുന്ന ഒരു സാഹിത്യം അല്ലെങ്കിലൊരു കൃതി അത് മറ്റുള്ള മറ്റൊരാൾ അത് വിവർത്തനം ചെയ്യുമ്പോൾ മറ്റ് ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്യുമ്പോൾ അത് ഒരുപാട് രണ്ട് പേരുടെ അതായത് വിവർത്തനം ചെയ്യുന്ന ആളുടെയും അതുപോലെ എഴുതിയയാളുടെയും കാഴ്ചപ്പാടുകൾക്കൊക്കെ വ്യത്യാസം ഉണ്ടെങ്കിലും അവരുദ്ദേശിക്കുന്ന തീമ് അത് സമൂഹത്തിന് മുമ്പിലെത്തിക്കാനായിട്ട് അവർ മാക്സിമം ശ്രമിക്കുന്നുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ ഈ ഞാൻ മലയാള ഭാഷയിലേ ക്ക് വിവർത്തനം ചെയ്യപ്പെട്ട പുസ്തകങ്ങളൊക്കെ ഒരുപാട് സമൂഹത്തിന് ഉന്നതിയാണ് നൽകുന്നത് സമൂഹത്തെ വളർത്തിയെടുക്കാനായിട്ടൊക്കെയാണ് നോക്കുന്നത് വിവർത്തനം ചെയ്യപ്പെട്ട ഓരോ സംഭവവും ഒരു എന്താണ് ഒരു നെഗറ്റിവിറ്റി ചിലപ്പോൾ നമുക്കറിയാം ചില പുസ്തകങ്ങളൊക്കെ വിവർത്തനം ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിലും അതൊക്കെ കൂടുതൽ വയലൻസ് കൊടുക്കുന്ന സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് പക്ഷെ അതിന് ഉപരിയായിട്ട് നമുക്കതിനെ പ്രേതക്കഥകൾ ഇഷ്ടംപോലെ പ്രേതക്കഥകളൊക്കെ രചനകൾ കള്ളിയങ്കാട്ട് നീലി അങ്ങനെ തുടങ്ങി കുറേ ഒരുപാട് കഥാപുസ്തകങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഇംഗ്ലീഷ് വേർഷൻസും ഒക്കെ ഉണ്ടായിരുന്നു പക്ഷെ അതൊക്കെ മലയാളത്തിന് തന്നെ ഞാൻ ഇരിക്കുമ്പോൾ കുറേ ഒക്കെ വയലൻസ് ഒക്കെ കൊടുക്കുന്ന സംഭവങ്ങളാണെങ്കിലും കുറച്ചുകൂടെ എന്താണ് കഥ വായിക്കാം എന്നുള്ളൊരു ഇൻട്രസ്റ്റിലേക്ക് ലോകത്തെ തന്നെ എത്തിക്കുന്നുണ്ട്